മൊബൈൽ ഷോപ്പല്ലേ എൻ്റെ ഫോണ് ഒന്ന് ബാറ്ററി മാറ്റണമായിരുന്നു ആ സാംസങ് ആ എടുത്തിട്ട് അത്രേ ആയിട്ടു എന്താന്ന് അറിയില്ല അതിൻ്റെ ഡിസ്പ്ലേ പോയിനി ബാറ്ററി പോയിനി ചാർജ് നിൽക്കുന്നില്ല താഴെ വീണിട്ടാ ചാർജറിന് ചാർജ്റ് കാണുന്ന് പക്ഷേ അത് വേഗം വീക്കാന്ന് ചാർജർ ഒക്കെ മാറ്റി നോക്കി ആ അതൊക്കെ കാണുന്നുണ്ട് പക്ഷേ പെട്ടെന്ന് തീരുന്ന് കോളോക്കെ അറ്റൻഡ് ആക്കിയാൽ പെട്ടന്ന് തീരുന്നു ചാർജ് അപ്പോൾ ബാറ്ററി എന്തെങ്ങും പ്രശ്നായിക്കോ അതൊക്കെ ആ അപ്പോൾ ബാറ്ററിയിൽ ബാറ്ററിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഉണ്ടായിരിക്കോ ചാർജ് നിൽക്കാത്തത് ആ എവിടെയാണ് ഷോപ്പ് സൗക്കിലാ സൗക്കിൽ എവിടെയായി അതെയാ എങ്ങനെ ഇതിന്റെ ബാറ്ററി മാറ്റണമെങ്കിൽ എത്ര പൈസ വരും അതെല്ലേ കുറെ ദിവസം എടുക്കുവാ അതെയാ ആ ആ ആ എന്നാൽ ഞാൻ വരാം ആ നാളെ വരാം ആ രാവിലെ വരാം ആ ശരി ആ രാവിലെ വന്നാൽ ഉണ്ടാവുന്നത് എത്ര മണിക്ക് ഓപ്പണ് പത്ത് മണിന്ന് ഒരു മണിവരെ ആ ഒരു മണിക്ക് മുമ്പായിട്ട് എത്താം ഓക്കേ ഓക്കേ ശരി അഡ്രസ്സ് പറയോ അതെയാ അതെല്ലേ ഓക്കേ ഓക്കേ അതെ ആ കാർഡ് ഉണ്ടോ അതെയാ ആ ഓക്കേ ശരി നാളെ വരാം